ആദ്യമായി പറയുകയാണെങ്കിൽ എന്താണ് ഞങ്ങളുടെ ജില്ലയുടെ അടുത്തായിട്ട് നമുക്ക് പറയുന്ന ടൂറിസ് പ്ലേസ് എന്ന് പറയുന്നത് വർക്കലയും അതുപോലെ തന്നെ എന്താണ് കൊല്ലം ബീച്ച് അതുപോലെ ഒരു ബീച്ചോടു കൂടിയാണ് ടൂറിസം വന്നേക്കുന്നത് അപ്പം ഇതിൽ ഏറ്റവും നമുക്ക് അറിയാൻ പറ്റുന്നത് അതായത് നമ്മളോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് നമുക്ക് തോന്നുന്ന അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൻ്റെ മിനി ഗോവ എന്ന് അറിയപ്പെടുന്ന നമ്മുടെ വർക്കല ക്ലിഫ് ട്രിവാൻഡ്രം ജില്ലയിൽ സിറ്റുവേറ്റഡായിട്ടുള്ള വർക്കല ക്ലിഫാണ് ഇവിടെ ഏറ്റവും നമുക്ക് ഒരു പറയാൻ പറ്റുന്ന അതായത് നമുക്ക് ഒരു മിനി ഗോവ നമുക്ക് ഒരു എന്താണ് ഒരു എക്സ്പിരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമുക്ക് അവിടെ അതുപോലെ എന്താണ് വെൽ എന്താണ് ഡെവലപ്പ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് വർക്കല ക്ലിഫ് എന്ന് പറയുന്നത് കാരണം നമുക്ക് അക്കോമഡേഷൻ ആയാലും അതുപോലെ തന്നെ ഹോട്ടൽസ് അതുപോലെ നമ്മുടെ കാര്യങ്ങളും അതുപോലെ നമ്മടെ അവൈലബിലിറ്റി അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും നമുക്ക് ഏറ്റവും കൂടുതൽ എന്താണ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ പറഞ്ഞത് വർക്കല ക്ലിഫെന്ന് പറയുന്നത് അപ്പം അതുപോലെ തന്നെ എന്താണ് ആൾക്കാരുടെ സഹകരണം അതുപോലെ ടൂറിസ്റ്റ് പ്ലേസ് അതുപോലെ ഫോറീനേഴ്സ് ഏറ്റവും കൂടുതൽ വന്നിറങ്ങും ഇറങ്ങുന്ന സ്ഥലമായിട്ട് നമുക്ക് ഇപ്പോൾ വർക്കല ക്ലിഫിനെ വേണേ കൺസിഡെർ ചെയ്യാം കാരണം എന്താണ് അത്രത്തോളം സൗകര്യങ്ങൾ അതിന് സർക്കാർ എന്താണ് അവിടെ അതിന് വേണ്ടി എന്താണ് വരുത്തിയിട്ടുണ്ട് അപ്പം അതുപോലെത്തൊരു സ്ഥലമാണ് അപ്പം നമുക്ക് അറിയാവുന്ന ഒരേ ഒരു കാര്യം എന്താണെന്നു വച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ ടൂറിസ്റ്റ് പ്ലേസ് നമ്മുടെ ഈ ഒരു ബിസിനസുകളെ സഹായിച്ചിട്ടുണ്ട് കാരണം എന്താണ് ഇതുപോലെയുള്ള ഫോറീനേഴ്സും അതുപോലെ തന്നെ പല സ്ഥലത്തു നിന്നും പല രാജ്യത്തു നിന്നും പല സ്ഥലത്ത് നിന്നും വരുന്ന ആൾക്കാർ ഇതുപോലെ നമ്മുടെ ഇവിടെ വന്നു എന്താണ് ഇതുപോലെ ടൂറിസ്റ്റ് പ്ലേസിൽ വന്ന് അപ്പം അത് നമ്മുടെ ബിസിനസിനെ ഡെവലപ്പ് ചെയ്യുകയാണ് കാരണം ധാരാളം ആൾക്കാർ ക്ലിഫെന്ന് പറയുമ്പം ഒരു വലിയ ഒരു ഏരിയ ആയിട്ട് ഇങ്ങനെ ചുറ്റി കിടക്കുകയാണ് അപ്പം അവിടെ കുറേ ആൾക്കാർ ഇതുപോലെ വന്നു ചെറിയ ഒരു ഷോപ്പും കാര്യങ്ങളുമൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഇതുപോലുള്ള അവരുടെ ഒരു അവർ ബിസിനസ്സായിട്ട് തുടങ്ങിയേക്കുന്ന ഈ സംരംഭം സംരംഭങ്ങൾ പുറത്ത് നിന്നുള്ള ആൾക്കാരുടെ വരവോടെ വളരെ മികച്ച ഒരു രീതിയിലോട്ടാണ് അത് കുതിച്ചുയരുന്നത് അതും എന്താണ് ഫോറീനേഴ്സൊക്കെ നമ്മുടെ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുക എന്നൊക്കെ പറയുന്നത് അതും അത്പോലെ ടൂറിസം മേഖല എന്ന് പറയുകയാണെങ്കിൽ എല്ലാം സർക്കാരിൻ്റെ ഇതുപോലെ എല്ലാ ഒരു വളരെ നീറ്റ് ആൻ്റ് ക്ലീൻ ആയിട്ടാണ് നമ്മുടെ ഈ ചുറ്റ് പ്രദേശങ്ങളെല്ലാം ഇട്ടിരിക്കുന്നത് അപ്പം അതുപോലെ ഒരു സ്ഥലത്ത് ഇതുപോലെ ആൾക്കാർ വരുമ്പം അതുപോലെ എന്താണ് ഇതുപോലെ ടൂറിസം പ്ലേസ് ഈ ഓരോ ടുറിസം പ്ലേസിലും പുറത്ത് നിന്നുള്ള ആൾക്കാരുടെ വരവോടെ നമ്മടെ ഈ ബിസിനസ്സുകളെ അതായത് ഈ കൊച്ച് കൊച്ച് മേഖലയിലൊന്നും വർക്ക് ചെയ്യുന്നവരായാലും ഹോട്ടൽസ് ആയാലും അതുപോലെ എന്താണ് അക്കോമഡേറ്റ് ചെയ്യുന്ന ആൾക്കാരായാലും അങ്ങനെ എല്ലാം അതുപോലെ നമ്മുടെ ഗൈഡ് അങ്ങനെ എല്ലാ തരത്തിൽ ടൂറിസ്റ്റ് എന്താണ് ടൂറിസം കൊണ്ട് നമ്മുടെ ഈ ബിസിനെസ്സുകൾ ഡെവലപ്പ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പം അതുപോലെ ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം ടൂറിസം മേഖലെ നമ്മൾ പറഞ്ഞു വരുവാണെങ്കിൽ ഇപ്പം പ്രാദേശിക ബിസിനെസ്സുകൾ വളർച്ച ടുറിസം വളരെ അധികം സഹായിച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയണം കാരണം ഇതുപോലെയുള്ള ഓരോ ഓരോ എന്താണ് ടൂറിസം പ്ലേസ് വന്നത് കൊണ്ടാണ് അവിടെ എല്ലാം ഓരോ ഓരോ കൊച്ചു കൊച്ചു ബിസിനെസ്സുകൾ തുടങ്ങാൻ സാധിക്കുകയും അത് വളരേ രീതിയിൽ എന്താണ് മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റുകയും ചെയ്യുന്നത് പിന്നീട് പറയുകയാണെങ്കിൽ ഇതുപോലെ സർക്കാർ പിന്നേയും നമുക്ക് പറയാനുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് കുറച്ച് പോരായ്മകൾ എല്ലാ കാര്യത്തിലും ഉണ്ടാകും അതുപോലെ നമുക്ക് പോരായ്മകളായിട്ട് ഇതിനെ ഒരു എന്താണ് പോസിറ്റീവ്സ് മാത്രമല്ല നമുക്ക് പോരായ്മകളും പറയാനുണ്ട് അതുപോലെയുള്ള പോരായ്മകളാണ് ഈ പറയുന്നത് എന്താണ് ഒരു ചില ഇടങ്ങളിലുള്ള വൃത്തിയില്ലായ്മ അതുപോലെ എന്താണ് പാർക്കിങ്ങ് സൗകര്യങ്ങൾ അതുപോലെ നമുക്ക് ആ ഒരു സ്ഥലത്തോട്ട് എത്തി ചേരാനുള്ള ബുദ്ധിമുട്ട് റോഡ് കാര്യങ്ങൾ അങ്ങനത്തെ അല്ല കേട്ടോ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് ഇതിനെ വളരെ അധികം അല്ലെങ്കിലും ഒരു ശരാശരി ഒരു ചെറിയ രീതിയിലെങ്കിലും ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം കാരണം എല്ലാവർക്കും എത്തിച്ചേരാൻ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ എല്ലായിടത്തും എത്താൻ ഒരു ഭയങ്കര ബുദ്ധിമുട്ടും ആളുകൾക്കുണ്ട് അപ്പം നമ്മൾ അത് പറഞ്ഞു വരികയാണെങ്കിൽ എന്താണ് ഇതുപോലെ നമുക്ക് ഒരു ഇത് വേണം അതായത് ഇതിൻ്റെ ഒക്കെ സൗകര്യങ്ങൾ കൂട്ടാൻ സർക്കാർ വളരെ സഹായിക്കണം കാരണം അത്തരത്തിൽ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള വാഹനങ്ങൾക്കും എത്തിച്ചേരാൻ ഒരു സൗകര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് വളരെ അധികം ഗുണം ചെയ്യുകയും ചെയ്യും കാരണം ഇതു പോലെ വയസായ ആൾക്കാരും അതു പോലെ അവർകൊക്കെ ചിലപ്പം ഇത്ര ദൂരം നടന്നെത്താനും അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തോട്ട് നടന്ന് കയറി ചെല്ലാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാവും അപ്പം അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇതുപോലെ ഒരു വണ്ടി സൗകര്യങ്ങളും കാര്യങ്ങളും നമ്മുടെ ആ ഒരു റോഡിലോട്ട് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ എന്താണ് ഉപകാരപ്പെടുകയും ചെയ്യും അതും നമ്മുടെ ഒരു ബിസിനെസ്സിന് ഒരു വളർച്ചയായിട്ട് വരും അപ്പം പ്രാദേശിക ബിസിനസ്സുകളെ വളർച്ചയെ ടൂറിസം എങ്ങനെ ബാധിക്കുന്നു എന്നു വച്ചാൽ നമുക്ക് ഇത്തരത്തിലൊക്കെ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്തരത്തിലൊക്കെ ഈ പഴയ പ്രാദേശിക ബിസിനെസ്സുകളുടെ വളർച്ചക്ക് ടൂറിസം വളരെ ഒരു ഘടകമായിട്ടു തന്നെ പ്രവർത്തിച്ചിട്ടു ണ്ട് നമുക്ക് മനസ്സിലാക്കാം പിന്നീട് പറയാൻ വരികയാണെങ്കിൽ എന്താണ്